ആ ഇതെ മേല്കരേന്നാണ് വിളിക്കുന്നത് എൻ്റെ പേര് അനു എന്നാണ് ഞാൻ ഇവിടെ മേല് കരേന്നാണ് വിളിക്കുന്നത് എൻ്റെ ഒരു എൻ്റെ വീട് ഇപ്പം ഒരു നീല വീടാണ് ഞങ്ങളത് മുകളിലോട്ട് കുറച്ച് പണിയാൻ വേണ്ടീട്ട് ഉള്ളൊരു പ്ലാനിലായിരുന്നു അപ്പോൾ അതിൻ്റെ ഇലക്ട്രിക്കൽ വർക്കിനക്കെ അതായത് സാധനങ്ങൾ വാങ്ങിക്കാനും വയറിങ്ങും കാര്യങ്ങളുവെല്ലാം കൂടെ എത്ര ആകും എന്നറിയാൻ വേണ്ടിയിട്ടായിരുന്ന് ഞാൻ ചേട്ടനെ വിളിച്ചത് ഏകദേശമൊരു ഇരുപത്തി അഞ്ച് വർഷത്തോളം പഴക്കമുള്ള വീടാണ് അതിനകത്തെ വയറിങ്ങും പഴയതാണ് അപ്പം അതും കൂടെ ഒന്ന് മാറ്റണവായിരുന്നു ആ ഏ സി വെയ്ക്കൻ പ്ലാനൊണ്ട് അത് താഴത്തെ ഒരു മുറീലും മുകളിലത്തെ ഒരു മുറീലുവാണ് വയ്ക്കേണ്ടത് അപ്പം എങ്ങനാത് ബെഡ്റൂമിലായിട്ട് എക്സോസ്റ്റ് വേണ്ട പക്ഷേ മുകളിലൊരു ബാത്ത് റൂമെടുക്കുന്നുണ്ട് അപ്പതിനകത്ത് എക്സോസ്റ്റ് വെക്കേണ്ടി വരുവായിരിക്കും ആ ഹീറ്റർ വയ്ക്കാനാണ് ആ എങ്ങനാണ് സൗകര്യം മെറ്റീര്യല് ഇപ്പം സാറന്നെ വാങ്ങിക്കുവാണെങ്കിൽ വിലയിൽ എന്തേലും വ്യത്യാസം വരുവോ അത് നമ്മൾ വാങ്ങിച്ചു വരുമ്പം എങ്ങനാണ് അതിലെന്തേലാ വ്യത്യാസം വരുന്നത് ഓ അതെ അതെ ഇല്ലല്ല ഇൻവട്ടർ ഒന്നും വയ്ക്കാൻ ഉദ്ദേശിക്കുന്നില്ല ഓ ഓ ഓ ഓ ആ ഓക്കെ ശരി ഓക്കേ ഓക്കേ ശരി ശരി താങ്ക് യൂ താങ്ക് യൂ